കഴിയുന്നതും ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും

വെള്ളോക്കെതട്ടീട്ടിണ്ടെങ്കിൽ അങ്ങനെ പോവാൻ ചാൻസ് ഇല്ല പക്ഷേയിനി അഥവാ പോവാണെങ്കിത്തന്നെ ഞാനത് മറ്റൊരു രീതിയിൽ അതേതാ പെരകിയ സ്ഥലത്ത് ഞാൻ എന്തെങ്കിലും രീതിയിൽ അതിനെ ചേഞ്ച് വരാൻ പറ്റുവോ നോക്കും അതല്ല എനിക്ക് ഇനിയും സമയമുണ്ടെങ്കിൽ ഞാൻ ചിത്രമൊന്നുകൂടി മാറ്റി വരയ്ക്കും കഴിയുന്നതും ഞാന് എൻ്റെ ചിത്രങ്ങള് അത് കംപ്ളീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരിക്കലും അതിനൊരു പ്രശ്നവും പറ്റില്ലാ എന്നുള്ളൊരു രീതിയില് ഇളള സ്ഥലത്തായിരിക്കും ഞാനത് സൂക്ഷിക്കുക അഥവാ എന്തെങ്കിലും പറ്റീട്ടുണ്ടെങ്കിത്തന്നെ അത് സമയം ഇനി എൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായ്യിട്ടും ആ ഒരു ചിത്രം മാറ്റി വരയ്ക്കും അതല്ല ചെറിയ എന്തേലും പ്രശ്നമാണെങ്കിൽ മറ്റൊരു കളറുകൊണ്ടതവിടെ കറക്റ്റ് ചെയ്യും